കസ്റ്റമർ കെയർ അല്ലേ എനിക്ക് എൻ്റെ ഫോണൊന്ന് റീചാർജ് ചെയ്യണമായിരുന്നു ആ എൻ്റെ ഇപ്പം നിലവിലെ ബാലൻസ് നോക്കാൻ എനിക്ക് കഴിയുന്നില്ല ആ കുറേ നേരമായി നോക്കുന്നു പറ്റുന്നില്ല ആ അപ്പം എനിക്ക് ഒന്നു റീചാർജ് ചെയ്യണമായിരുന്നു എത്രതരം പ്ലാനുകൾ ഉണ്ട് ഒരു വർഷത്തേക്ക് എത്രയാകും രണ്ടായിരം അല്ലേ ഓ ഒരു മാസത്തേക്കോ ഓക്കെ ഓക്കെ അപ്പം എത്ര ജി ബി ഡാറ്റാ കിട്ടും ആണല്ലേ ആ എൻ്റെ സിമ്മ് ജിയോ ആണ് എൻ്റെ നമ്പർ എട്ട് പൂജ്യം എട്ട് ഒമ്പത് നാല് ഒന്ന് ആറ് രണ്ട് എട്ട് ഒന്ന് ആണ് ഇതിലേക്ക് നിങ്ങൾ ഒന്ന് ചെയ്യാൻ പറ്റുമോ അപ്പം എത്രയാണ് ഞാൻ തരേണ്ടത് ആ ഓക്കെ ഓക്കെ ആ ഇത്ര കിട്ടുമല്ലേ ആ ടു എയ്റ്റി ജി ബി അല്ലേ ഓക്കെ എന്നാൽ നിങ്ങൾ അത് ചെയ്തോളൂ ഓക്കെ താങ്ക് യു താങ്ക് യു